നമ്മൾ ഫോറസ്റ്റ് ട്രക്കിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വനം വകുപ്പിൻ്റെ അനുമതിയുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളു അല്ലങ്കിൽ അനുമതിയില്ലാതെ പോകുന്നത് നമുക്ക് സുരക്ഷിതത്വമല്ല അതുകൊണ്ട് തന്നെ പ്രധാനമായും നമ്മൾ ട്രക്കിങ്ങ് ചെയ്യുമ്പോൾ അനുമതിയോട് കൂടിയിട്ട് വേണം അങ്ങോട്ട് പ്രവേശിക്കാൻ അല്ലാത്ത പക്ഷം അപകടം വിളിച്ച് വരുത്താനാണ് സാധ്യത കൂടുതൽ ഉണ്ടാവുക അനുമതി വേണമെന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷക്ക് വേണ്ടി മാത്രമാണ് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അവിടെ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അനുമതി കിട്ടിയിട്ട് കിട്ടിയിട്ടുള്ളതാണെന്നൊണ്ടെങ്കിൽ അവർക്ക് കാടിനുള്ളിൽ എത്ര പേരുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അവർക്കറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഒന്നിൽ കൂടുതൽ ഗൈഡ് ഉണ്ടാവുന്നത് നമുക്ക് നല്ലതാണ് ഫോറസ്റ്റ് ട്രക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ് അതുപോലെ ചില പാക്കേജിൽ അനുമതിയില്ലാതെയും ഗൈഡില്ലാതെയും ഒക്കെ പ്രവേശിക്കാറുണ്ട് എന്നാൽ കൂടുതലും നമുക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നത് ഈ അനുമതിയോട് കൂടി പോകുന്ന പാക്കേജിലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ട്രക്കിങ്ങ് ഒക്കെ ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളുടെ താമസ സ്ഥലത്തേക്ക് കടന്ന് ചെല്ലുക വളരെ അപകടകരമാണ് അതിനാൽ തന്നെ ഇത്തരം ഗൈഡുകൾ നമ്മുടെ കൂടെ പരിചയ സമ്പന്നമായ ഗൈഡുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ലാതെ ഇല്ലാതിരിക്കും അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന കാട്ടു തീ അതുപോലെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇത്തരം ഗൈഡുകൾ കൂടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അവരുടെ ലീഡേഴ്സിനെ അറിയിച്ചിട്ട് അറിയിക്കുവാനും നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കാനുമൊക്കെ അവർക്ക് സാധിക്കുന്നതാണ്